ആ അതെ പറയൂ ആ പറഞ്ഞോളു ഓക്കെ ആ ഉണ്ടല്ലോ

ആ അവിടെയുണ്ട് അത് എത്രയാവും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഉൾക്കൊള്ളുന്ന റേറ്റ് എത്രയാകും

എല്ലാ ഇതും കൂടെ അപ്പം നമുക്ക് ഒരു ഇരുപത്തി അയ്യായിരം രൂപയൊക്കെ വരും അതിൽ മുല്ലപ്പൂ ഒക്കെ വേണോ

ആ ഓക്കെ ഓക്കെ അതും ഇവിടെ ലഭ്യമാണ് റോസാപ്പൂവ് ചെറുത് അല്ലേ ആ ഓക്കെ

നിങ്ങൾ അഡ്വാൻസ് ഒരു അയ്യായിരം രൂപ തന്നിടണം ബാക്കി നിങ്ങൾ അത് മതിയോ അപ്പോൾ അതിന് ഒരു അയ്യായിരം രൂപയേ വരികയുള്ളു അതിൽ കൂടുതലൊന്നും വരില്ല ഡാർക്ക് ഡാർക്ക് കളർ തന്നെയാണ് ആയിക്കോട്ടെ

ആയിക്കോട്ടെ അങ്ങനേയും പറ്റും ഞാൻ ലൊക്കേഷൻ അയച്ച് തരാം ആ ഓക്കെ ഓക്കെ ആ ഞാൻ ഇപ്പോൾ വാട്സപ്പ് ചെയ്യാം ആ ശരി എന്നാൽ താങ്ക് യു